ആ പനിയും തലവേദനയൊക്കെയാണ് പിന്നെ കൊറോണ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് പോസിറ്റീവ് ഒരു മൂന്നൂ ദിവസമായി ആ പോസിറ്റീവ് ആണ് കാണിച്ചത് ആ തലവേദനയും മേല് വേദനയൊക്കെയുണ്ട് പനി രണ്ടുദിവസം മുമ്പ് ഉണ്ടായിരുന്നു ഇപ്പോഴൊരു ലേശം കുറവുണ്ട് വീട്ടിലിപ്പം ആർക്കും ഇല്ല വീട്ടിൻ്റെ അടുത്തില്ല ഞങ്ങൾ ഒരു ഫംഗ്ഷന് പോയിട്ടുണ്ടായിരുന്നു അപ്പം അവിടുന്നാണോന്ന് അറിയില്ല ആ ഇപ്പോൾ ക്വാറൻറ്റയിനിലാണ്

ആഹ് ഭക്ഷണം പനിയൊക്കെ ആയതുകൊണ്ട് കഴിക്കാൻ കയ്പ്പൊക്കെയാണ് വായ് അതുകൊണ്ട് കഴിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് ആ ആ ആ ആ ആ ആ ആ പിന്നെ വേറെന്തൊക്കെയാ

ആ ആ ആ ആ ആ ആ ആ ആ ആ ആ ആ

ആ ഗുളിക തന്നിട്ടുണ്ടായിരുന്നു പാരസിറ്റമോളും ആ അത് കഴിച്ചായിരുന്നു മൂന്ന് നേരം ഇല്ല രണ്ട് നേരമേ കഴിച്ചിട്ടുള്ളൂ

ആ ഇപ്പം പനി കുറവായതുകൊണ്ട് അങ്ങനെ കുറച്ചിട്ട് ചുമ ഒന്നുമില്ല തലവേദനയാണ് ആ

ആയിക്കോട്ടെ ആയിക്കോട്ടെ ശരി